മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പലർക്കും പ്രായമുള്ളവർക്കും പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതു ഞാൻ പലരെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതു പിന്നേ അതിൽക്കൂടി ബാങ്കിങ് സിസ്റ്റം നടത്താനായിട്ടും യു പി ഐ ട്രാൻസാക്ഷൻ നടത്താനായിട്ടും ഞാൻ ട്രെയിനിങ് കൊട് അവരെ പഠി ബോധവൽക്കരരാക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഹേങ്ങായിക്കഴിഞ്ഞാലത് ശരിയാക്കാനായിട്ടുള്ള വിദ്യകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എപ്പോഴും ആർക്കെങ്കിലും എ റ്റി എം ആയിട്ട് എവിടെയെങ്കിലും സ്റ്റക്കായിക്കഴിഞ്ഞാൽ ഞാനവരെ സഹായിക്കാനായിട്ടെൻറ്റെ മനസ്സുണ്ട് അ അന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേറ്റവും മനുഷ്യൻ സഹായിക്കുന്നയൊന്നാണ് ഐ റ്റി മേഖല അതിനകത്തെന്തു ബുദ്ധിമുട്ട് വന്നാലും ശരി അതു പരിഹരിച്ചില്ലെങ്കിൽ അതവരവിടെ പിന്നെ അതു നിന്നു പോകുന്നു സ്റ്റക്കായിപ്പോകുന്നുണ്ട് അതിന് അറിവുള്ളവർ അതിൻ്റെ അതിനെ സഫർ ചെയ്യുന്നയാളുകൾക്കുള്ള സഹായിച്ചു കൊടുക്കണം അതിനു പ്രതിഫലമൊന്നും നോക്കരുത് നമ്മളിൽ ഉള്ള അറിവുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുമത് ശരിയിലുള്ള അറിവുകൾ കൂടുതൽ കിട്ടും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ